എൻ്റെ ഗ്രാമത്തിൽ ഒരുപാട് ജലസ്രോതസ്സുകളുണ്ട് കിണറുകൾ ഉണ്ട് അതുപോലെ തന്നെ ബോർ വെൽ ഉണ്ട് അതുപോലെ തന്നെ കനാലിലൂടെ വരുന്ന വെള്ളം ഉണ്ട് അപ്പോൾ കിണറിൻ്റെ വെള്ളമൊക്കെയാണ് നോക്കുകയാണെന്ന് വച്ചാൽ എല്ലാ വീടുകളിലും കിണറുകൾ ഉണ്ടാവാറില്ല പക്ഷെ ഏതെങ്കിലും വീട്ടിൽ നല്ല കിണറിൽ വെള്ളം അല്ലെങ്കിൽ കിണറ്റിൽ നല്ല വെള്ളമൊക്കെ ആണെങ്കിൽ അത് ആളുകളെല്ലാവരും കൂടി ഉപയോഗിക്കാറുണ്ട് കിണറ്റിലെ വെള്ളം പൊതുവെ നല്ല വെള്ളമാണ് നമുക്ക് വീട്ടിലെ മറ്റ് ആവശ്യങ്ങൾക്ക് കിണറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ബോർ വെല്ലിലെ വെള്ളമൊക്കെ ആണെങ്കിലും നമ്മളത് ഒരു നമ്മുടെ വീട്ടിന് നമ്മുടെ വീട്ടിലെ നമ്മുടെ വെള്ളം ബോർ വെല്ലിലെ നമ്മൾ ചെയ്തിട്ട് നമ്മളത് മോട്ടറടിച്ചിട്ട് നമ്മള് ആക്കുകയാണ് അപ്പോൾ ബോർ വെൽ വെള്ളം പൊതുവെ അത്ര നല്ല വെള്ളമൊന്നുമായിരിക്കില്ല അത് പറഞ്ഞാൽ പാറപ്പൊടി മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വെള്ളം മറ്റ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് കിണറ്റിലെ വെള്ളം ഉപയോഗിക്കണ പോലെ നമുക്കെല്ലാത്തിനും ബോർ വെൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാ വീടുകളിലും ബോർ വെല്ലും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏകദേശം നമ്മുടെ കനാൽ വെള്ളം ഏകദേശം ഉണ്ടാവണ സമയത്തൊക്കെ കനാൽ വെള്ളത്തെ ആശ്രയിക്കണ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് മറ്റ് കുളിക്കാനും മറ്റും വസ്ത്രങ്ങള് അലക്കിയിടാനൊക്കെ ആ വെള്ളത്തെ ആശ്രയിക്കാറുണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ കനാൽ വെള്ളം ഒരുപാട് വെള്ളത്തിൻ്റെ നിറം തന്നെ ഒരുപാട് മാറി മറ്റ് വേസ്റ്റും മറ്റും വെള്ളത്തിലോട്ടിട്ട് വെള്ളത്തിൻ്റെ നിറം തന്നെ മാറി കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ നല്ല തെളിഞ്ഞ നല്ല വെള്ളമായിരുന്നു പക്ഷെ ഇപ്പോഴൊക്കെ വെള്ളം ഇത്ര വൃത്തിയില്ലായ്മയും നിറം തന്നെ മാറിയ അവസ്ഥയാണ് പിന്നെ ജല സ്രോതസ്സുകളൊക്കെ ആയിട്ട് മഴക്കാലത്താണെങ്കിൽ മഴവെള്ളം സംഭരിച്ച് വയ്ക്കേണ്ടത് ഉണ്ട് എൻ്റെ വീട്ടിൽ മഴവെള്ളം സംഭരിക്കാറുണ്ട് നല്ല മഴ ഒക്കെ പെയ്യുകയാണെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളം കിട്ടും അപ്പോൾ ആ ഒരു വെള്ളം നമുക്ക് മറ്റും നമുക്ക് വീട്ടില് ഭക്ഷണങ്ങൾ പാകം ചെയ്യാനൊക്കെ ഉപയോഗിക്കാം നല്ല വെള്ളമായിരിക്കും കുറച്ചു കാലം എടുത്ത് വക്കാം അല്ലെങ്കിൽ നമുക്ക് അതിൽ നമുക്ക് ചോറൊക്കെ ഉണ്ടാക്കുകയാണ് വച്ചാൽ കേട് വരാണ്ടും മറ്റും നിൽ ക്കും അങ്ങനെ നല്ല വെള്ളമാണ് മഴവെള്ളം പക്ഷെ അത് എപ്പോൾ എല്ലാ കാലത്തും കിട്ടണമെന്നില്ല കിണറ്റിലെ വെള്ളമായിക്കോട്ടെ നമുക്കത് ചിലപ്പോൾ വേനൽക്കാലത്ത് ലഭ്യമാവണമെന്നില്ല ബോർ വെല്ലിലെ പിന്നെ നമുക്കെപ്പോഴും ലഭ്യമാണ് അങ്ങനെ ജലസ്രോതസ്സുകളുണ്ട് എല്ലാ കാലത്തും ലഭ്യമായ ജല സ്രോതസ്സുകൾ കുറവാണ്